മലയാള ഭാഷ അതിൻ്റെ വാക്കുകൾ കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും വ്യത്യസ്തമാവുന്ന ഒന്നാണ് ഇന്ത്യയിൽ ഒരുപാടു ഭാഷകളുണ്ടെങ്കിലും മലയാളത്തിൻ്റെ മലയാള ഭാഷയുടെ അതിൻ്റെ ഒരു തട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനം അത് എന്നും ഇന്ത്യയിലുടനീളം അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് മലയാളത്തിൻ്റെ പഴയകാല പ്രയോഗങ്ങളും പദങ്ങളും തമ്മിലും പുതിയ കാല പദങ്ങളും പ്രയോഗങ്ങളും തമ്മിലും ഏറെ വ്യത്യാസ്തങ്ങൾ കാണാൻ സാധിക്കും പഴയ കാല മലയാളം ഏറെ സംസ്കൃതത്തിൽ നിന്നും കടമെടുത്തതും അതുപോലെ ഏറെ കട്ടിയുള്ള പഴയ ഭാഷകൾ ഉപയോഗിച്ചും പഴയ വാക്കുകൾ ഉപയോഗിച്ചും സൃഷ്ടിക്കപ്പെട്ടിരുന്നതാണ് എന്നുണ്ടെങ്കിൽ പുതിയ കാല മലയാള ഭാഷകൾ അതിൻ്റെ പ്രയോഗങ്ങളിലും അതിൻ്റെ വാക്കുകളിലും ഏറെ പുതിയ സാംസ്കാരങ്ങളെ അല്ലെങ്കിൽ പുതിയ സാംസ്കാരിക പൈതൃകങ്ങളെ അത് മുന്നോട്ടു വെച്ചിട്ടുള്ളതായി കാണാം ഇപ്പോഴത്തെ മലയാളത്തിലെ പ്രയോഗങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വാക്കുകളുമെല്ലാം കുറച്ച കൂടി പുരോഗമിച്ചതും അതുപോലെ ഇംഗ്ലീഷിൽ നിന്നുമെല്ലാം കടമെടുത്തതുമായി നമുക്കു കാണാൻ സാധിക്കും മലയാളത്തിൽ അതിൻ്റെ സമൃദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനം നമുക്കു മനസ്സിലാക്കി തരുന്ന ഒരുപാടു പദങ്ങളുണ്ട് നമ്മുടെ പൂര്വികരെല്ലാം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കില് അവർ എഴുതുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് നമുക്കു കേൾക്കാനും വായിക്കാനും വായിക്കാനും അറിയാനും സാധിക്കും അരിശില്ലേരി അതുപോലെ കുഴിമണ്ഡലം കുളിച്ചു ചുടുവെള്ളത്തിൽ ഇട്ട് പിടിയേൽക്കുക പാറിപ്പൊയ്ക്കുക മണ്ണിനിടയിൽ തള്ളിക്കളയുക ഇങ്ങനെ തുടങ്ങി ചിത്രകാരൻ സ്വപ്നങ്ങളാൽ നിറച്ച ക്യാന്വാസ് വാക്കുകളുടെ വണ്ടിച്ചവിട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വാക്കുകൾ മലയാളത്തിലല്ലെങ്കിൽ ഒരുപാടു പ്രയോഗങ്ങൾ മലയാളത്തിലുള്ളതായി കാണാൻ സാധിക്കും അരിശില്ലേരി എന്നതു പഴയ കാലങ്ങളിലെല്ലാം നമ്മുടെ വീട്ടിലെ സ്നേഹാന്തരീക്ഷത്തോടെയുള്ള അടുക്കളാ അന്തരീക്ഷം അല്ലെങ്കിൽ സ്നേഹം വളമ്പുന്ന അടുക്കളയുടെ അന്തരീക്ഷം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളങ്ങനെ പ്രയോഗിക്കാറുണ്ട് അതുപോലെ രൂഢമൂലമാക്കുക എന്നുള്ള പ്രയോഗങ്ങളെല്ലാം ഇപ്പോഴും നിലവിലുള്ളതാണ് കുഴിമണ്ഡലം കുളിച്ചു എന്നത് ഒരാൾ ആഴത്തിൽ മുങ്ങിപ്പോയി ഒരു കാര്യം ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളങ്ങനെ പറയാറുണ്ട് പാറിപ്പൊയ്ക്കുക എന്നതു വേഗത്തിൽ അതി വിദൂരമായി ഒരാൾ എത്തുക അല്ലെങ്കിൽ പോവുക എന്നതിൻ്റെ അര്ഥമായിട്ടാണു നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചുകാണുന്നത് അതുപോലെ വാക്കുകളുടെ വണ്ടിച്ചവിട്ട് എന്നു നമ്മൾ പലരും പറയാറുണ്ട് അത് ഒരാൾ തൻ്റെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള എഴുത്തുകളിലോ നന്നായി കട്ടിയുള്ള ഭാഷകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗഹനമായ ഭാഷകൾ ഭാരമുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുതുകയോ പ്രസംഗിക്കുകയോ ആണെങ്കിൽ നമ്മൾ വാക്കുകളുടെ വണ്ടിച്ചവിട്ട് എന്നു പറയാറുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ആ ഇതിൻ്റെ വാക്കുകളും അല്ലെങ്കിൽ പ്രയോഗങ്ങളും തന്നെയാണ് മലയാള ഭാഷയെ അതിൻ്റെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്